എനിക്ക് ഇഷ്ടമുള്ള പുസ്തകം എന്നൊക്കെ പറഞ്ഞാൽ ബെന്യാമിൻ്റെ ആട് എന്ന് പറഞ്ഞ പുസ്തകം ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അപ്പോൾ അത് നല്ല രീതി നല്ല രസമാണ് അപ്പോൾ ഒരാടിൻറെ ഒരു ജീവിതത്തെ കുറിച്ചാണ് ആടിൻ്റെയും ഒരു മനുഷ്യൻ്റെയും ജീവിതത്തെക്കുറിച്ച് ആണ് അത് പറയുന്നത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്താണെന്ന് വെച്ച്കഴിഞ്ഞാൽ അത് നല്ല രസമാണ് നമുക്ക് വായിച്ചിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു എന്താ പറയുക ഒരു സുഖം കിട്ടുന്ന ഒരു പുസ്തകമാണ് അത് പിന്നെയെന്നു പറഞ്ഞാൽ പല പുസ്തകങ്ങളും കാര്യങ്ങളും ഒക്കെ എനിക്ക് ഇഷ്ടമാണ് പിന്നെ ഈ ചെറിയ കുട്ടികളുടെ കഥകളും കാര്യങ്ങളും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വായിക്കാൻ വേണ്ടിയിട്ട് ഈ ബാലരമ അങ്ങനത്തെ നമ്മൾ പണ്ട് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്ന അതൊക്കെ എനിക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി വി ഷോകൾ എനിക്ക് കോമഡി പരിപാടിയാണ് കൂടുതലായിട്ടും എനിക്ക് ഇഷ്ടമെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരു ചിരി ഇരു ചിരി ബംബർ ചിരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട് മഴവിൽ മനോരമയിൽ അത് ഞാൻ നല്ലവണ്ണം നല്ല രീതിയിൽ കാണും ആസ്വദിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ ഫ്ലവേഴ്സിൽ അതായത് കോമഡി ഉത്സവം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓരോരുത്തരുടെ മിമിക്രിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഞാൻ കാണുന്ന ടി വി ഷോസും പുസ്തകവും വേണമെങ്കിൽ പറയാം